ആ വിനുവേട്ടാ പറയു

ആ ഓക്കെ ആ ആ ശരി ശരി ഓക്കെ റെഡി അത് എത്ര സ്ക്വയർ ഫീറ്റാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വലിയ വീട് നിങ്ങളതിന് അത്ര ആൾക്കാരൊന്നുമില്ലല്ലോ വീട്ടില് ഒരു അഞ്ചേട്ടാൾ അല്ലെ ഉള്ളൂ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി കുഴപ്പമില്ല നമുക്ക് പണിയാം പിന്നെ അതിപ്പോൾ രണ്ടു നിലയാണല്ലേ വേണ്ടത് രണ്ടു നിലയല്ലേ വേണ്ടത് ആ ഓക്കെ ആ മുകളിൽ തട്ട് മറ്റേ ഇതു വരുന്നതാണ് മച്ചു വരുന്ന രീതിയിലാണ് ആ ശരി ശരി ഓക്കെ അപ്പം അതില് മരത്തിൻ്റെ പണിയായിരിക്കും കൂടുതല് വരിക കോസ്റ്റ് അല്ലാ ആ കോസ്റ്റ് മാത്രമല്ല സമയവും എടുക്കും മരത്തിൻ്റെ പണിയായതുകൊണ്ട് കുറച്ച് സമയവും എടുക്കും പിന്നെ പണ്ടത്തെ പോലത്തെ അങ്ങനത്തെ ആശാരിമാരെ നമ്മൾ മെയിനായിട്ട് കണ്ടു പിടിക്കണം കുറച്ച് ആ ഓക്കെ ഇപ്പോൾ അതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വേണ്ടത് ഏ മുകളിലും അടിയിലും കൂടിയോ ആ പിന്നെ ഞാന് എൻ്റെ ഒരു ഐഡിയ പറയട്ടേ ഇപ്പോൾ നമ്മള് കയറി ചെല്ലുമ്പോൾ ഒരു സിറ്റ്ഔട്ട് പിന്നെ ഉള്ളിലേക്ക് കയറിച്ചെന്നാൽ ഒരു ഹാള് അങ്ങനത്തെ പിന്നെ നടുമുറ്റം അങ്ങനത്തെ ഇതൊക്കെയല്ലേ നിങ്ങള് ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഇപ്പം നമുക്ക് അതില് ഞാൻ പറഞ്ഞാൽ ഇപ്പം പഴയ വീടില് ഒരു പഴയ പഴമയുടെ ലുക്കും ഉണ്ടാകും പക്ഷെ സംഭവം ഉള്ളില് ഫുള്ള് പുതിയ ഒരു ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങള് നമുക്ക് റെഡിയാക്കാം ആ മനസിലായി മനസിലായി ആ പഴയൊരു ട്രഡീഷണൽ മോഡലിലെ വീട് അല്ലേ ആ അപ്പം നമുക്ക് അതില് മെയിനായിട്ടിപ്പോൾ എന്താ വേണ്ടെന്നു വെച്ചാലേ ഞാൻ പറയണ് പറഞ്ഞാൽ നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ല്ലേ അപ്പം നിങ്ങളുടെ സ്ഥലം എവിടെയായിട്ടാ അത്യാവശ്യം ഏരിയ ഉള്ള സ്ഥലാമാണോ ആ ആ ഓക്കെ അവിടെ എത്ര സെൻറ് അവിടെ എത്ര സെൻറുണ്ടാവും സ്ഥലം അമ്പതു സെന്റുണ്ടല്ലെ ആ ശരി ശരി ശരി ഓക്കെ ആ മതി അമ്പതു നമുക്ക് പത്തു മുപ്പതു സെൻറില് വീടും ബാക്കി പറമ്പാക്കാമല്ലോ കുഴപ്പമില്ല ആ റെഡി റെഡി ഓക്കെ അപ്പം ആ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചു മരത്തിൻ്റെ ഒക്കെയാണ് ആദ്യം പർച്ചേസും കാര്യങ്ങളുമൊക്കെ വരിക സിമെൻറും കാര്യങ്ങളൊക്കെ ആ സിമെൻറ് നമുക്ക് അതായത് മുഴുവൻ അധികം നമുക്ക് മാക്സിമം മരത്തില് തന്നെ പണിയാൻ നോക്കാം അപ്പോൾ കാണാൻ നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും അതിനു നല്ല മറ്റേ പഴമയുടെ ഇതൊക്കെ ഉണ്ടാകും കൊത്തു പണിയും കാര്യങ്ങളൊക്കെയായിട്ട് സെറ്റ് ചെയ്യാം പിന്നെ നമ്മള് വെട്ടുകല്ലിൽ വീട് പണിയാം അതൊക്കെ എടുക്കാം അതൊക്കെ എടുക്കാം മറ്റേ വെട്ടുകല്ലിൽ പണിയാം അല്ലേ മറ്റേതിനു പകരം ഹോളോബ്രിക്സിനു പകരം അതാകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു നമുക്ക് ആ വർക്കിന് ഫിനിഷിംഗ് കിട്ടും പിന്നെ ബാ എല്ലാ റൂമും ബാത്ത് അറ്റാച്ച് അറ്റാച്ചഡ് പോരേ ആ ഓക്കെ ഞാനപ്പോൾ മൊത്തത്തിലെ ഇതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളുമൊക്കെ ഏതാ ആ മനസിലായി തട്ട് അതല്ല ഞാന് അതാ പറഞ്ഞത് ഞാനൊരു ഡീറ്റൈൽഡ് പ്ലാനായിട്ട് ചേട്ടനെ നാളെ കാണാൻ വരാം ഏഹ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കാര്യങ്ങള് ഇതില് ചെയ്തു കഴിഞ്ഞാൽ ഞാന് ഏകദേശം എൻ്റെ മനസിലൊരു സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പം ഡീറ്റൈൽഡ് പ്ലാനുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ നാളെ വരാം ഓക്കെ കോസ്റ്റ് ഇപ്പോൾ നമുക്ക് ഞാൻ നോക്കട്ടെ നമുക്ക് ആ മറ്റേ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഏകദേശം ഇപ്പോൾ എത്ര വരും എന്നു കാരണം നമുക്ക് മറ്റേ സാധാ വീടല്ലല്ലോ സാധാ വീടിന് ഇപ്പോൾ ഒരു സ് സ്ക്വയർ ഫീറ്റിന് നമുക്കൊരു രണ്ടായിരം മൂവായിരം റുപ്യയൊക്കെ വരുള്ളൂ ഇതിലിപ്പം മരത്തിൻ്റെ പണീം മറ്റേ കൊത്തു പണീം കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് ചിലപ്പോ കുറച്ച് കൂടാൻ ചാൻസുണ്ട് ഒരു നാലായിരം റുപ്യ അയ്യായിരം റുപ്യേൻ്റെ അടുത്തു വരാൻ ചാൻസുണ്ട് മരത്തിൻ്റെ ആയായതു കൊണ്ടേ അപ്പോൾ നോക്കട്ടെ മാക്സിമം നമുക്ക് ചിലവ് കമ്മിയാക്കി ചെയ്യാൻ നോക്കാം ഓക്കെ ഞാൻ അപ്പം എന്തായാലും നാളെ ഡീറ്റൈൽഡ് പ്ലാനുമായിട്ട് കാണാൻ വരാം അപ്പം അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തരാം ആ അറിയാം അറിയാം അറിയാം ഞാൻ ആ ഞാനൊന്നു വിളിച്ചിട്ടു വരാം വിളിച്ചിട്ടു വരാം വിളിച്ചിട്ടു വരാം ശരിയെന്നാ ശരിയെന്നാ ഓക്കെ